ഇപ്പോൾ സാഹിത്യത്തിലായാലും കവിതകളിലായാലും മലയാള ഭാഷ എന്താ പറയുക നല്ലൊരു പങ്ക് തന്നെ വഹിക്കുന്നുണ്ട് അതായത് മലയാളഭാഷയിൽ ഉള്ള കവിതകൾക്കൊക്കെ എന്താ പറയുക കൂടുതൽ ആശയഭംഗികളും കാര്യങ്ങളൊക്കെ കൂടുതലും ഉണ്ടെന്നാണ് പകുതി ആൾക്കാരും ഇതാക്കുന്നത് പിന്നെ മലയാളഭാഷയിൽ തന്നെ കവി ഒരുപാട് കവികളും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു ഉള്ളതായിട്ട് നമുക്കറിയിണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് അവാർഡുകളും കാര്യങ്ങളും അങ്ങനെയൊക്കെ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് എന്താ പറയുക മലയാള ഭാഷയിൽ ഇപ്പോൾ പല സാഹിത്യങ്ങൾക്കും നോ ഭയങ്കര പ്രൈസും കാര്യങ്ങളും അതായത് അവാർഡ് കാര്യങ്ങളൊക്കെ ലഭിച്ച് ലഭിച്ചിട്ടുണ്ട് അതായത് ഇംഗ്ലീഷിൽ എഴുതുന്നതിനേക്കാളും കൂടുതൽ എന്താ പറയുക അവാർഡുകളും കാര്യങ്ങളൊക്കെ ഇന്ന് മലയാളത്തിൽ ലഭിച്ചിട്ടുണ്ട് ആൾക്കാർക്ക് ആ പിന്നെ മലയാള ഭാഷയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് എന്താ പറയുക കവിതയായിക്കോട്ടെ സാഹിത്യമായിക്കോട്ടെ എന്താണെങ്കിലും നല്ല ആശയം അതായത് ഭംഗി എല്ലാം കൂടുതൽ ഇതിന് തന്നെയാണ് എന്നാണ് കൂടുതൽ ആൾക്കാരും പറയുന്നത് അപ്പോൾ അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ മലയാള ഭാഷ ഉപയോഗിക്കാനും എളുപ്പമാണ് അതുപോലെ എഴുതാനും എല്ലാ കാര്യത്തിനും ഉപ എളുപ്പമായതു കൊണ്ട് തന്നെ മലയാള ഭാഷേൻ്റെ ഒരുപാട് കവിതകളും കാര്യങ്ങളും ഇപ്പോഴും നിലവിൽ നിൽക്കുന്നുണ്ട്